ഹലോ ഞാൻ ഇടുക്കിയിൽനിന്ന് രേഷ്മിയാണ് കേട്ടോ വിളിക്കുന്നത് വാട്ടർ ബില്ല് ഞങ്ങൾക്കിപ്പോൾ ആവശ്യം വന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണേ കഴിഞ്ഞ തവണ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വന്നത് അപ്പം എന്താ ഇപ്രാവശ്യം ഇത്രയും കൂടാനുള്ള കാരണം എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നേ വിളിച്ചത് എൻ്റെ വാട്ടർ ബില്ല് ആറ് അഞ്ച് എട്ട് ഒമ്പത് രണ്ട് ഏഴ് നാല് അഞ്ച് ആറ് ആണ് നിങ്ങളത് നോക്കിയിട്ടൊന്ന് പറഞ്ഞ് തരുമോ ഞങ്ങളാകെ ഈ വീട്ടിൽ നാല് പേരേയുള്ളൂ ആ നാല് പേർക്ക് ഒരു ദിവസം മാക്സിമം പോയാൽ അഞ്ഞൂറ് ലിറ്റർ അല്ലെങ്കിൽ പിന്നെ നാന്നൂറ് ലിറ്ററിൻ്റെ ആവശ്യം ഇപ്പം ഈ ആറായിരത്തി എഴുന്നൂറ് രൂപയോളം ഈ വാട്ടർ ബില്ല് വരണമെങ്കിൽ എന്താണ് രണ്ടു മാസം കൂടുന്നുള്ള ചാർജ് ആണോ നിങ്ങളീ ഈടാക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നേ വിളിച്ചത് ഈ വാട്ടർ ബില്ല് ഇനി കൂടുന്നതിനെ കൊണ്ട് ഞങ്ങൾ ആകെ വീട്ടിൽ നാല് പേരെ ഉള്ളൂ ഈ നാല് പേരില് രണ്ട് പേർ സ്കൂൾ കുട്ടികളാണ് ഒരാൾ വീട്ടമ്മയാണ് ഒരാളാണ് ഒരാൾ മാത്രാണ് ജോലിക്ക് പോകുന്നത് അതും കൂലിപ്പണിയാണ് ഇത്രയും രൂപ കൂടുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് അടയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഇനി നമ്പറ് വാട്ടർ ബില്ലിൻ്റെ നമ്പറും ഹൗസ് മാറി പോയതാണോ ഞങ്ങളാണ് ഈ മലമുകളിലാണെ നിൽക്കുന്നത് വെള്ളത്തിന് വളരെ ക്ഷാമമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വാട്ടറിൻ്റെ ബില്ലൊക്കെ അടയ്ക്കുന്നത് എന്നിട്ടും ഇത്രയും കൂടുതൽ വരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ഞാൻ വിളിക്കുന്നത് ഇടുക്കി ടൗണിൽനിന്നാണ്